തീര്ച്ചയായും ഇടുക്കി എന്നുള്ളത് ഞാൻ ജനിച്ചു വളര്ന്ന നാടാണ് അതു പോലെ തന്നെ എന്റെ അച്ഛൻ അമ്മമാരും അവരുടെ കാരണവന്മാരും എല്ലാം ജനിച്ചു വളര്ന്ന നാടെന്ന നിലയിൽ എനിക്ക് അഭിമാനമുള്ള ഒരു നാടാണ് ഇടുക്കി മറ്റുള്ള ജില്ലക്കാരൊക്കെ ഇടുക്കി എന്ന് കേൾക്കുമ്പോൾ അവര്ക്ക് ഒരു പുച്ഛമായിട്ടാണ് തോന്നുന്നത് കാരണം കാട് മല അതുപോലെ മണ്ണിടിച്ചിൽ ഇങ്ങനെയുള്ള ഒരു സങ്കല്പ്പമാണ് മറ്റുള്ള മറ്റ് ജില്ലക്കാര്ക്ക് ഇടുക്കിയെ കുറിച്ചുള്ളത് പക്ഷെ എനിക്ക് എന്റെ നാടിനെകുറിച്ചു അഭിമാനം ആണ് എപ്പോഴും ഉള്ളത് കാരണം എന്നാണ്ടി ഈ പറയുന്ന ആളുകള് തന്നെ ഒരു അവധി വെക്കേഷന് അല്ലെങ്കിൽ അവധിക്കാലത്ത് വെക്കേഷനാണെങ്കിലും ഒരു ഒരു എന്ജോയ്മെന്റിനാണെങ്കിലും വരുന്നതും ഇടുക്കി ഈ പറയുന്ന ഇടുക്കിയിലേക്കാണ് അതുപോലെ അതായത് മെയിൻ ആയിട്ട് നമ്മുടെ മൂന്നാറ് ഇപ്പ്ം ഈ ഞാന് പറഞ്ഞ വട്ടവട അതുപോലെ തന്നെ ഇടുക്കി ഡാം ഇതൊക്കെ കാണാനാണ് ഈ എറണാകുളത്തു നിന്നും അല്ലേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കില് മറ്റ് ജില്ലകള് നിന്നും എല്ലാവരും വരുന്നത് ഇടുക്കിയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടുക്കിക്കാരൻ എന്നുള്ളതിൽ നല്ല ഒരു അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജനിച്ചതും വളര്ന്നതും എല്ലാം ഇടുക്കിയിലാണ് എന്റെ സ്കൂള് കാലഘട്ടവും അതുപോലെ തന്നെ എന്റെ കോളേജ് കാലഘട്ടവും എല്ലാം ഞാന് ഡിപ്ലോമ പഠിച്ചതുമെല്ലാം ഇടുക്കീലാണ് പിന്നെ എന്റെ വീടിന്റെ അടുത്തു നിന്ന് തന്നെ ഒരു ഇരുപത് കിലോമീറ്ററാണ് ഇടുക്കി ഡാം എന്നുള്ളത് ഫേമസായിട്ടുള്ള ഒരു ഡാമാണ് ഇടുക്കി ഡാം ആര്ച്ച് ഡാ കൊണ്ടു ചെറുതോണി ഡാം കൊണ്ട് അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു അമ്പത് കിലോമീറ്ററ് മാത്രമേ ഈ മൂന്നാറിലേക്ക് ഉള്ളൂ മറ്റ് ജില്ലക്കാര്ക്ക് അത് വരണമെങ്കിൽ തന്നെ നൂറ് കിലോമീറ്റര് അല്ലെങ്കില് ഇരുന്നൂറ് കിലോമീറ്റര് ഡ്രൈവ് ചെയ്തിട്ടല്ലേ മറ്റു സംസ്ഥാനക്കാര്ക്ക് വരണമെങ്കില് അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ ഡ്രൈവ് ചെയ്തിട്ട് വരണം അതുപോലെ തന്നെ മറ്റു ജില്ലകളെ അപേക്ഷിച്ചു ഇടുക്കിയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു തണുപ്പ് നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ചൂട് എന്നുള്ളത് കുറവാണ് വരും കാലങ്ങളില് ചിലപ്പം മാറ്റം ഉണ്ടായേക്കാം എന്നാല് പോലും ഇടുക്കിയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ആസ്വദിക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഒരു കുട ചൂടേണ്ട കാര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ മഴക്കാലം ആകുമ്പോള് ചില സ്ഥലങ്ങളില് മണ്ണിടിച്ചില് അല്ലെങ്കില് ഉരുൾ പൊട്ടല് അങ്ങനെ അതും നല്ല മഴക്കാലത്ത് മാത്രമേ അതും രണ്ട് വര്ഷം മൂന്ന് വര്ഷം അല്ലെങ്കിൽ അഞ്ച് വര്ഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കല് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മറ്റു ജില്ലക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് മണ്ണിടിച്ചിൽ അല്ലെങ്കില് മറ്റു ജില്ലക്കാര് നമ്മുടെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നത് ഈ മണ്ണ് ഇടിച്ചിലിനെയാണ് അത് വല്ലപ്പോഴും വര്ഷത്തിൽ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം കൂടുമ്പം ഒക്കെ എപ്പോഴെങ്കിലും ഒരു ഒരിക്കൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോട് എന്റെ കൂട്ടുകാർ പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഇടുക്കിയിലേക്ക് സ്ഥലം മാറിക്കൂടെ അല്ല ഇടുക്കിയിൽ നിന്ന് മറ്റ് എറണാകുളത്തേക്കോ അല്ലേ വേറെ ഏതെങ്കിലും ജില്ലകളിൽ സ്ഥലം മാറിക്കൂടെ എവിടെ ആണെങ്കിലും നമുക്ക് വിദ്യാഭ്യാസം അതുപോലെ തന്നെ എന്ജോയ്മെന്റിലുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പോള് ഞാന് പറയുന്നത് നമ്മക്ക് എന്ജോയ്മെന്റ് ചെയ്യാനാണെങ്കില് നമ്മുടെ വീടിന്റെ പറമ്പോ അല്ലെങ്കില് നമ്മുടെ കുട്ടികളും ആയിട്ട് വീട്ടിലേക്ക് പുറത്ത് ഇറങ്ങുക കാര്യങ്ങൾ ഒക്കെയായി ചെയ്താലും നമുക്ക് എന്ജോയ്മെൻ്റ് ആയിട്ട് കൂട്ടാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വിറ്റ് എറണാകുളം അല്ലെങ്കില് കൊല്ലം തിരുവനന്തപുരം ഇവിടെയൊക്കെ പോയിക്കഴിഞ്ഞാല് നമുക്ക് ശുദ്ധ വായു എന്ന ഒരു കാര്യം ഒരിക്കലും കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ എന്ജോയ്മെന്റിന് നമ്മൾ എപ്പോഴും മിനിറ്റുകള്ക്ക് അല്ലെങ്കില് മണിക്കൂറുകള്ക്ക് വില നല്കേണ്ടതുണ്ട് മെയിനായിട്ടുള്ള ഒരു കാര്യം ശുദ്ധവായു ആണ് അത് ഈ ഇടുക്കിയില് കിട്ടുന്ന അത്രയും നമ്മൾക്കാണ് ഏറ്റവും കൂടുതല് മരങ്ങളും കാര്യങ്ങളും ജലസമൃദ്ധ സമൃദ്ധമായ തോട്ടങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളത് ആ ഒരു സ്ഥലം വിട്ട് നമ്മൾക്ക് ഒരിക്കലും എറണാകുളത്തോ അല്ലേ ഇടുക്കി വിട്ടിട്ട് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാന് പോലും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മൾ രാത്രി കിടന്നു ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നിസ്സാരം നമ്മൾക്ക് ഫാന് പോലും വേണ്ട എന്നാൽ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞു വണ്ണപ്പറം അല്ലെങ്കില് മറ്റ് ജില്ലയിലേക്ക് കയറി കഴിഞ്ഞാല് നമുക്ക് ഏ സി ഇല്ലാതെ അല്ലെങ്കില് രാത്രിയിൽ ഏ സി ഇല്ലാതെ ഉറങ്ങുന്ന ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നതല്ല